ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒൻപത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത്